ആ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ പറയൂ ആ അതെ ആ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ആ ഗുളിക കുടിച്ചിരുന്നോ ആ എന്നിട്ട് ഇല്ല അല്ലേ ആ എന്താണെന്നറിയില്ല വെള്ളം കുടിക്കാറുണ്ടോ ആ ആ എന്നാൽ ഒന്ന് വന്ന് നോക്കേണ്ടി വരും ഇപ്പോൾ വയർ വേദന ആയതുകൊണ്ട് എന്താണെന്ന് പറ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും ടെസ്റ്റിന് കൊടുത്തിട്ട് എന്താണ് അതിനിപ്പം മൂത്രത്തിൽ പഴുപ്പാണെണെങ്കിൽ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലാണെങ്കിൽ ഇപ്പോൾ വയർ വേദന എല്ലാത്തിനും വരുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് ഫുഡ്ഡ് കഴിച്ചിരുന്നോ എന്തെങ്കിലും ഇല്ലേ വീട്ടിൽ തന്നെയാണോ ആ പുറത്തുനിന്ന് ഫുഡ്ഡ് കഴിച്ചാലും ഫുഡ്ഡിന് എ എന്തെങ്കിലും ഈ പിടിക്കാത്ത ഇപ്പോ ചെമ്മീൻ പോലത്തെ എന്തെങ്കിലും കഴിച്ചിരുന്നോ ഇല്ലേ ആ എന്നാൽ പിന്നെ ഫുഡ്ഡിന്റേതായിരിക്കില്ല എന്നാൽ മൂത്രത്തിൽ പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം പിന്നെ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ വേദനയോ ആ പിന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യം പോക്കുണ്ട് ആ ആ എന്നാൽ ഒന്ന് വന്ന് നോക്കാം മൂത്രത്തിന് കളർ മാറ്റമോ നാളെയുണ്ടാവും നാളെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി രാവിലെ പിന്നെ ഒരു എട്ട് മണി എട്ട് മണി വരെ ബുക്കിംഗ് ഉണ്ട് അപ്പോൾ എട്ട് മണി ആ ഒരു എട്ട് മണി വരെ ഏഴര തൊട്ട് എട്ട് മണി വരെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് ബുക്ക് ചെയ്തിട്ട് ഈ നമ്പറിൽ തന്നെ ബുക്ക് ചെയ്താൽ മതി എന്നാൽ പെട്ടെന്ന് കാണിക്കാം ആ പിന്നെ മൂത്രത്തിന് യൂറിൻ എന്തെങ്കിലും കളർ മാറ്റം ഉണ്ടോ ഇല്ലേ ആ ആ ആ എന്നാൽ വന്നിട്ട് എന്നാൽ ചെക്ക് ചെയ്തിട്ടൊന്ന് നോക്കാം എന്താണ് പ്രശ്നം എന്ന് പിന്നെ ആ പിന്നെ വയർ വേദനയ്ക്ക് തലവേദനയൊന്നും ഇല്ലല്ലോ ആ അത്രേയുള്ളൂ ആ ആ ആ എന്നാൽ നാളെത്തന്നെ വന്നോ നാളെ രാവിലെ വന്നാൽ മതി ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി ആ എന്നാൽ ഓക്കേ